നമ്മുടെ വയനാട് ജില്ലകളില് ഒരുപാട് ജോലികള് പിന്തുണയ്ക്കുന്ന ആൾക്കാര് ഉണ്ട് അത് ആ നമ്മുടെ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉദ്യോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് സാമ്പത്തിക സംരംഭങ്ങള് തുടങ്ങി ഉള്ള ആൾക്കാരുണ്ട് അതുപോലെത്തന്നെ ഓപ്പറേറ്റർമാരുണ്ട് ചില്ലറ വില്പ വില്പനക്കാരുണ്ട് ഒക്കെ നമ്മുടെ വയനാട് ജില്ലയിൽ ഉള്ള ആൾക്കാരാണ് അവർക്ക് അവരുടേതായ ജീവിത രീതികളായിരിക്കും ഉണ്ടാവുക അവര് നമ്മുടെ നാടിന് സൗ എന്താ പറയുക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു മൂല്യം തന്നെയാണ് അവരുടെ വ്യാപാരം എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അധ്വാനിക്കുന്നത് നമ്മള് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം നമ്മളെന്തായാലും ഗവൺമെൻറ്റിന് കൊടുക്കണം അപ്പം അവർക്ക് ഒരു ലാഭം തന്നെ ആയിരിക്കുമല്ലോ സമ്പത് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു മുന്നോട്ടം തന്നെയായിരിക്കും ഇപ്പോൾ സാമ്പത്തിക സംരംഭങ്ങള് തുടങ്ങുന്നവർക്കാണെങ്കില് ഇപ്പോൾ ചിട്ടി പോലുളള സംരംഭങ്ങള് തുടങ്ങുകയാണെങ്കില് അതിൽനിന്ന് ഇപ്പം ആളുകൾക്കും അതുപോലെത്തന്നെ അവർക്കും ഒരു ലാഭം ഉണ്ടാവും അതുപോലെത്തന്നെ അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയില് ഇങ്ങ ഇങ്ങനെ ഉള്ള വ്യാപാരങ്ങളെല്ലാം പിന്തുണക്കുന്ന ആൾക്കാര് തന്നെയാണുള്ളത് അവർക്ക് അതുകൊണ്ട് മെച്ചം ജോലി ഉറപ്പു വരുത്താനും മെച്ചമുള്ള ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്